വരയെന്നത് ഒരു കലയാണ് പലരും ഇന്നു നാം കാണുന്ന സമൂഹത്തെ വരക്കുന്നു തന്നെയുണ്ട് നമ്മൾ കാണുന്ന പലകാര്യങ്ങളിലും അത് പേപ്പറേൽ നിറങ്ങളുപയോഗിച്ചു കാണിക്കുന്നതാണ് വരയെന്നത് രാജാക്കന്മാരുടെ കാലത്തും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ വരയെന്നത് കൊട്ടാരങ്ങളിൽ നമ്മൾ കാണുന്നതാണ് വരച്ച ചിത്രങ്ങളാണ് പണ്ടത്തെ കാലം മുതൽ ഉള്ള ഒന്നാണ് വരകൾ നാം നമ്മുടെ മനസ്സിന് ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അതൊക്കെയാണ് നാം വരയിലൂടെ പുറത്തേക്കു കാണുന്നത് നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു കലയാണ് വരയെന്നത് നാം ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ നാം നമ്മുടേതായ ചിന്തകളെ ഭാവനകളെയും നിറത്തിലൂടെ മറ്റുള്ളവർക്കു പകരുന്നൊരു കലയാണ് ഈ വരയെന്നത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒത്തിരി വരക്കാറുണ്ട് പക്ഷെ ഏറ്റവും പ്രാധാനപ്പെട്ടൊരു മൊമൻറ്റ് എന്നുപറയുന്നത് ഞാൻ വരച്ചതിൽവെച്ച് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പടം വരച്ചു ഏതോ ഒരു പെൺകുട്ടി ആരെയോ നോക്കി ഏതോ ഒരു തീരത്തു നിൽക്കുന്നു വരച്ചതുമാത്രം അറിയാം പക്ഷേ എല്ലാവരും പറഞ്ഞു നല്ല പടമാണ് നല്ലതാണ് ഇനിയും വരക്കണം അതൊക്കെ കേട്ടപ്പോഴാണ് വരക്കാനുള്ള വരയോടുള്ള ആഗ്രഹം കൂടിയതും വരക്കാൻ ഇഷ്ടമായി തുടങ്ങിയതും നാം നിറത്തിൽ പകർത്തുന്ന ഓരോ വരകൾക്കും അതിൻ്റേതായ അർത്ഥമുണ്ട് ഓരോ കലാകാരനും ഓരോ വരയിലും ഓരോ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് നാം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വരയ്ക്കുന്നത് എങ്കിൽ അതിന് ആ വരയിൽ നൂറ് ശതമാനം വിജയം ഉണ്ട് വരയ്ക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് നമ്മുടെ വരകൾ കയറാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ ഒരു കലാകാരനു മാത്രമേ സാധിക്കുകയുള്ളൂ വരകൾ എപ്പോഴും നല്ലതാണ് ഇന്നും എത്രയോ കാലമായി വരകൾ നാം കണ്ടുവരുന്നു വരകളിലൂടെ ഓരോ ഓരോ ചൈതന്യമാണ് നാം നേരിടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല നിറങ്ങളുള്ള വരകളാണ് നാം കണ്ടുവരുണേ വരയ്ക്കാൻ പല നിറത്തിലുള്ള സാഹചര്യമുണ്ട് പല നിറങ്ങളുണ്ട് പല പല നിറത്തിൻ്റെ പല കളർ വേർഷൻസുണ്ട് എല്ലാം കൊണ്ടും ഒന്ന് ആയ ഈ കാലഘട്ടത്തിൽ വളരെ വര ഏറ്റവും നല്ലതാണ്